പ്രത്യേകിച്ച് പാടാനായിട്ട് പഠിക്കുന്ന ഗുരുക്കന്മാരോ ആശാന്മാരോ ഒന്നുമില്ല ജീവിതത്തിൽ പക്ഷേ പാട്ടുകളൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഭയങ്കര ഒരു അനുഭൂതിയാണ് വളരെ ഇഷ്ടമാണ് എനിക്ക് പാട്ടു കേൾക്കാനും പാട്ടു പഠിക്കുന്നതും പാട്ടു പഠിപ്പിക്കുന്നതും പാടുന്നതുമായിട്ടുള്ള ആൾക്കാരെ മനസ്സുകൊണ്ട് ഭയങ്കര അനുഭൂതിയാണ് അവരെ അതുപോലെ അതുപോലെ ഇഷ്ടമാണ് പാട്ട് നമ്മൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും നല്ല നല്ല പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുമ്പം നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്നൊരു ആനന്തവും ഒരു പ്രതീക്ഷയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പക്ഷെ അങ്ങനെ ആശാനായിട്ടോ പാട്ടോ ഒരു ഗുരുവിൻ്റെ കീഴിലോ നിന്നൊന്നും പ്രാക്റ്റീസ് ചെയ്യുന്നോ പഠിക്കുന്നോ ഒന്നുമില്ല അതിന് തക്ക കഴിവുകളൊന്നും ഇല്ല പക്ഷെ എത്ര എവിടെ പാട്ടു കേട്ടാലും എവിടെ പാട്ടുകൾ പഠിപ്പിക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാലും അതു ശ്രദ്ധിക്കുകയും നല്ല രീതിയിൽ അതിനെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് ആ ഒരു അനുഭൂതിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പാടുന്ന നമ്മുടെ ജീവിതത്തിൽ പാടാനൊരു കഴിവ് കിട്ടുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ പാടാൻ പറ്റുന്നതും വലിയ സ്വർഗ്ഗീയ ഒരു നമുക്ക് കിട്ടിയ ഒരു ദാനമായിട്ട് തന്നെ കണക്കാക്കാം അത്രത്തോളം കനിഞ്ഞ് ദൈവം തന്ന ഒരു കഴിവാണ് പാടുക എന്നത് ആ പാടാൻ ലഭിക്കുന്ന ഓരോ വ്യക്തിക്കും പാട്ടു പാടാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും ജീവിതത്തിൽ പാഴായി പോവല്ലേ പാഴാക്കരുതേ എന്നുള്ളതാണ് എന്താ ചിരിക്കുന്നത് പാട്ട് നമ്മുക്ക് പാടാൻ സാധിച്ചില്ലെങ്കിലും പാടുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നും ഉണ്ട് പാട്ടുകളൊക്കെ കേൾക്കുമ്പം നമുക്കുണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം എത്രത്തോളം വലുതാണെന്ന് ആ ഒരു അനുഭവത്തിൽക്കൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ് എത്ര എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും നമ്മൾക്ക് മതിയാവത്തില്ല അത്രത്തോളം നമ്മൾ പാട്ടിലെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പാടാനായിട്ടുള്ള ഒരു കഴിവ് എന്നെ സംബന്ധിച്ചെടുത്തോളം ഇല്ല അതാണ് പ്രത്യേകിച്ച് നമ്മൾക്ക് പാട്ട് അങ്ങനെ പാടി മുന്നോട്ട് പോവാൻ സാധിക്കുന്നില്ല പക്ഷെ നമ്മൾ എവിടെ പാട്ടു കേട്ടാലും എവിടെ പാട്ടുകൾ റെക്കോർഡ് ചെയ്താലും എവിടെ പാട്ടു പഠിപ്പിക്കുന്ന കണ്ടാലും അതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് അടക്കി അത്രത്തോളം അവർക്ക് വേണ്ടി നമ്മൾ സപ്പോട്ട് ചെയ്യുകയും അത്രത്തോളം നമ്മളവരെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഒതുക്കി നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അത്രത്തോളം സ്നേഹവും കരുതലും എല്ലാം എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സർവ്വ നന്മകളും പാടുന്ന ഓരോ വ്യക്തികൾക്കും കിട്ടട്ടെയെന്ന് ആന്മാർദ്ധമായിട്ട് ആഗ്രഹിക്കുന്നൂണ്ട് അത്രത്തോളം നല്ല അനുഭവമാണ് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് പാടാനുള്ളൊരു കഴിവ് പക്ഷേ നമുക്ക് കൂടുതലായിട്ട് ആ പാട്ടിൻ്റെ അനുഭവം അല്ലേ പാടാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ നമ്മൾക്ക് പാട്ടിനെപ്പറ്റി പറയാനായിട്ട് ഒന്നുമില്ല ഇത്രത്തോളം ഉള്ളു